മരുന്നുകൾ ഇപ്പോൾ നമുക്ക് താങ്ങാവുന്ന രീതിയിൽ ലഭിക്കാറുണ്ടോയെന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ പോവുകയാണെങ്കിൽ എങ്ങനെയാണെങ്കിലും ഡോക്ടർ ഫീ ഒരു ഇരുന്നൂറ് ഇരുന്നുറ്റമ്പത് രൂപ മുന്നൂറ് വരെ ഇപ്പോൾ വരുന്നുണ്ട് അത്രയാവും ആ ഡോക്ടർ ഫീനേക്കാളും കൂടുതൽ പത്ത് അറുന്നൂറ് രൂപാ എഴുന്നൂറ് രൂപയാകും മരുന്നിന് ചിലപ്പോൾ ഒരു ചെറിയൊരു കുപ്പി മരുന്നേ ഉണ്ടാവൂള്ളു അതിനു ചിലപ്പോൾ എഴുന്നൂറ് രൂപയായിരിക്കും അപ്പം അങ്ങനെയാണ് ഉള്ളത് പിന്നെയെന്താണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ മരുന്ന് അങ്ങനെ ആ പൈസ അങ്ങനെ പോകും എങ്ങനെ പോയാലും നമ്മൾ ഒരാളെ കാണിക്കണമെങ്കിൽ ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ കയ്യിൽ വയ്ക്കാണ്ട് നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോയിട്ട് കാര്യം ഇല്ല പിന്നെ അത് നമ്മുടെ വരുമാനത്തിൻ്റെ എത്ര ശതമാനം മാറ്റി വയ്ക്കുന്നുയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് നൂറു ശതമാനത്തിലൊരു രോഗികളായ വീട്ടിലാണെങ്കിൽ ഒരു എൺപത് ശതമാനവും ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെങ്കിൽ എൺപത് ശതമാനം നമുക്ക് ആ ഒരു രീതിയിൽതന്നെ പോവും പിന്നെ ഇപ്പം ഗവൺമെൻ്റ് ആശുപത്രി ആണെങ്കിൽ വലിയ ഇതൊന്നുമില്ല അവർ കൂടുതലും അതായത് ചെറിയ ചെറിയ വിലയുള്ളതും മരുന്നുകൾ മാത്രമേ നമ്മൾക്ക് അവിടെ നിന്ന് തരുള്ളൂ വലിയ വലിയ വിലയുള്ള മരുന്നുകൾ നമ്മളോട് പുറത്തുപോയി മേടിച്ചോളാൻ പറയും അങ്ങനെയാണ് ഗവൺമെൻ്റ് ആശുപത്രീൻ്റെ ആവിശ്യമില്ലല്ലോ അപ്പോൾ സർക്കാർ ആരോഗ്യകേന്ദ്രങ്ങളിൽ നിന്നും സൗജന്യമരുന്നുകൾ ലഭിക്കാറുണ്ടെങ്കിലും കൂടുതലും നമ്മൾക്ക് അതായത് നമുക്ക് താങ്ങാവുന്ന രീതിയിലുള്ള അതായത് വലിയ വലിയ പൈസ ഉള്ളതൊക്കെ അവർ പുറത്തു നിന്ന് തന്നെയാണ് നമ്മൾക്ക് തരാറ് അത് നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു കാര്യങ്ങളാണ്